ഞാൻ ഇവിടെ നെഗറ്റീവ് പറയാനായി തെരഞ്ഞെടുക്കുന്നത് ലൈറ്റ് ബൾബാണ് ബൾബുകൾ ബൾബ് എന്ന് പറയുന്നത് ഫിലമെൻറ്റുള്ള ബുൾബുകളായത് കൊണ്ട് തന്നെ നമുക്ക് കറൻറ്റ് ബിൽ കൂടുതലാണ് ആ സാ ബൾബിൻ്റെ വാൾട്ട് വന്നിട്ട് അറുപത് വാൾട്ട് വരുന്നു അപ്പോൾ അറുപത് വാൾട്ടിൻ്റെ ബൾബ് കത്തുമ്പോൾ കറൻറ്റ് ബിൽ അതിനനുസരിച്ച് കൂ കൂടും കാരണം ഈ കറൻറ്റ് വരുന്ന കറൻറ്റ് ബൾബിൻ്റെ ഫിലമെൻറ്റിൽ കത്തി അതിൽ നിന്ന് വരുന്ന ഹീറ്റ് എനർജിയാണ് പ്രകാശമായി കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആ ഫിലമെൻറ്റ് ഹീറ്റാകാനുള്ള എനർജി അത്രയും നമ്മുടെ കറൻറ്റ് ലോസാണ് അപ്പോൾ അതിനനുസരിച്ച് നല്ലൊരു എമൗണ്ട് കറൻറ്റ് ബില്ലായി കിട്ടാനും ചാൻസുണ്ട് അതുപോലെ തന്നെ ആ ബൾബ് ഗ്ലാസ് കൊണ്ടായത് കൊണ്ട് പെട്ടെന്ന് നമ്മൾ തട്ടെ ന്നെ പെട്ടെന്ന് അറിയാതെ മുട്ടിയാൽ തന്നെ ബൾബ് പൊട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഫിലമെൻറ്റൊരു നേർത്ത ഇതായിട്ടാണ് ഉള്ളത് ഇപ്പോൾ ബൾബ് നമ്മൾ പെട്ടെന്ന് സ്പീഡായിട്ടൊന്ന് എളകുകയോ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടെങ്കിലും എടുത്ത് മാറ്റി വെക്കുമ്പോൾ സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ ഫിലമെൻറ്റ് ബ്രേക്ക് ആകും പിന്നെ ബൾബ് കത്തില്ല അപ്പോൾ പിന്നെ പുതിയ ബൾബ് വാങ്ങണം പെട്ടെന്ന് അപകടം പറ്റുന്നതാണ് അത് അത്പോലെയിപ്പോൾ പെട്ടെന്ന് താഴെ വീണാൽ പൊട്ടിയേച്ചാൽ ചില്ല് ചില്ല് കുത്തിക്കേറാം നമുക്ക് ആക്സിഡൻറ്റാകാനൊക്കെ സാഹചര്യം ഉണ്ട് ബൾബുകൾ ഇപ്പോ പണ്ടത്തെ ഫിലമെറൻറ്റ് ബൾബുകളെയും വെച്ച് നല്ലത് ഇപ്പോൾ എൽ ഇ ഡി ബൾബുകൾ നിരത്തിലിറങ്ങിയിട്ടുണ്ട് എൽ ഇ ഡി ബൾബ് എൽ ഇ ഡി ട്യൂബ് അതുപോലെ അത് നമുക്ക് കറൻറ്റ് ചാർജ് കുറക്കാനെല്ലാം സഹായിക്കും നേരത്തെയുള്ള ലൈറ്റ് ബൾബുകൾ പറഞ്ഞാച്ചാൽ നമുക്ക് നഷ്ടമാണ് കാരണം വെളിച്ചം മാത്രം കിട്ടില്ല നല്ലൊരു തീ കത്തുന്ന പോലത്തൊരു വെളിച്ചമായിരിക്കും പക്ഷെ വെളിച്ചം മാത്രം ഇല്ല പിന്നെ ബൾബ് ഹീറ്റാകും അറിയാതെ കത്തിക്കൊണ്ടിരിക്കുന്ന ബൾബിൽ പെട്ടെന്ന് പോയി കുട്ടികളോ ഇല്ലെങ്കിൽ ആരുടെയും കയ്യോ എന്തെങ്കിലും മുട്ടിയേച്ചാൽ കൈ പൊള്ളും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പണ്ടത്തെ ലൈറ്റ് ബൾബ്കളിലുണ്ട് ഇപ്പോൾ വരുന്ന എൽ ഇ ഡി ബൾബ്കളിൽ അങ്ങനത്തെ പ്രശ്നമേ ഇല്ല ഒരു ചെറിയ കുട്ടി പോയി പിടിച്ചാലും ഒന്നും സംഭവിക്കില്ല അത്രയും ഇതാണ് വെളിച്ചത്തിന് ഹീറ്റില്ല പക്ഷെ നേരത്തെ ഉള്ള ലൈറ്റ് ബൾബിൻ്റെ വെളിച്ചം പറഞ്ഞാച്ചാൽ ഹീറ്റാണ് കാരണം അത് ഹീറ്റ് എനർജിയിലാണ് പ്രവർത്തിക്കുന്നത് ഇത് മെർക്കുറി ലൈറ്റുകളാകുമ്പോൾ ഇപ്പം ഹീറ്റില്ലാ നല്ല ബ്രൈറ്റുണ്ടാകും അതൊക്കെയാണ് ലൈറ്റ് ബൾബിൻ്റെ പോരായ്മ ലൈറ്റ് ബൾബ് ഇപ്പോൾ ഇപ്പോൾ ലൈറ്റ് ബൾബുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർ കുറേ കുറച്ചാണ് ഇപ്പോൾ എല്ലാവരും എൽ ഇ ഡിയിലേക്ക് മാറിക്കൊണ്ടിരിക്കാണ് പണ്ടത്തെ ലൈറ്റ് ബൾബുകൾ പറഞ്ഞാച്ചള്ള് മെയ്നായിട്ട് നമുക്ക് കറൻറ്റ് നന്നായി യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കറൻറ്റ് ബില്ല് കാരണം നമ്മുടെ പൈസ നഷ്ടമാണ് കൂടുതലായിട്ടും ലൈറ്റ് ബൾബുകൾക്ക് കാരണം ഇപ്പം എല്ലാവരും എൽ ഇ ഡി ട്യൂബ് എല്ലാറ്റിലേക്കും മാറി ഇതെക്കെയാണ് ലൈറ്റ് ബൾബുകളുടെ പ്രശ്നം പിന്നെ ലൈറ്റ് ബൾബിന് ബൾബിനത്ര വലിയ എമൗണ്ട് ഒന്നും ഇല്ല ഇരുപത് രൂപ മുപ്പത് രൂപ ആ റേഞ്ചിൽ നമുക്ക് ഇപ്പോൾ ലൈറ്റ് ബൾബ് വാങ്ങാൻ പറ്റും

ചീപെസ്റ്റ് റേയ്റ്റില് സാധനം കിട്ടും പക്ഷെ ഗ്യാരണ്ടിയൊന്നുല്ലാ അത് പെട്ടന്ന് നമ്മുടെ കയ്യീന്ന് എന്തെങ്കിലും സംഭവിച്ചാ ബൾബ് ഫ്യൂസായി പോകും അതിന് ഗ്യാരൻറ്റിയോ അല്ലങ്കി വേറെ ഒന്നുമില്ല വാറൻറ്റി ഒന്നുമില്ല അപ്പ സാധനം പോയാച്ചാ പിന്നെ പുതിയത് വാങ്ങണം അതാണ് അതിൻ്റെ പ്രശ്നം ഇതൊക്കെയാണ് ലൈറ്റ് ബൾബുകളുടെ പ്രശ്നം അതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാവരും മറ്റേ എൽ ഇ ഡി ട്യൂബ് അങ്ങനത്തെ ലൈറ്റുകളിലേക്ക് മാറി